ആദ്യമായി ഇ പി എഫ് ഒയുടെ പോർട്ടലിൽ പോവുക പോയശേഷം ലോഗിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തശേഷം യൂസർ ഐ ഡിയും പാസ്സ്വേർഡും ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതിൽ യൂസർ ഐ ഡി അഥവാ യൂസർ നെയിമായി നമ്മുടെ കൺസ്യുമർ നമ്പർ അമർത്തുക കൺസ്യുമർ നമ്പർ അവിടെ അമർത്തിയ ശേഷം പാസ്സ്വേർഡ് ആയി നമ്മുടെ ജനന തിയ്യതിയും മാസവും വർഷവും അമർത്തുക ഇതിന് ശേഷം റീകാപ്ച്ച എന്ന ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് അത് തിരഞ്ഞെടുത്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷൻ അമർത്തുക ഇങ്ങനെ അമർത്തിയ ശേഷം നമ്മുടെ നമ്പറിലേക്ക് വൺ ടൈം പാസ്വേർഡ് അഥവാ ഒ ടി പി വരുന്നതാണ് ഈ വരുന്ന ഒ ടി പി കൃത്യമായി നോക്കി അടിച്ച് കൊടുത്ത് കൊടുത്ത ശേഷം നമ്മൾ ലോഗിൻ ആവുന്നതാണ് ഇങ്ങനെ ലോഗിൻ ആയ ശേഷം നമ്മുടെ ഇ പി എഫ് സംഭാവനകളെകുറിച്ച് അറിയുവാനായി പാസ്സ്ബുക്ക് വേണ്ടിയതാണ് ഇതിനായി നമ്മുടെ കൺസ്യുമർ പേജ് അഥവാ ഫോറത്തിലേക്ക് പോവുക അതിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം അതിൽ പോയി ഒന്നുകൂടി നമ്മുടെ കൺസ്യുമർ നമ്പറും ജനന തിയ്യതിയും മാസവും വർഷവും അടിച്ചുകൊടുക്കുക ഇത് കൃത്യമായി അടിച്ചുകൊടുക്കുമ്പോൾ ഡൗൺലോഡ് ഇ പാസ്സ്ബുക്ക് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇ പാസ്സ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഭദ്രമായി സേവ് ചെയ്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചശേഷം നമ്മുടെ ഭവനവായ്പ്പകളുടെ റീഫിനാൻസ് അപേക്ഷയുടെ ഡോക്യൂമെന്റേഷനായി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇ പാസ്സ്ബുക്ക് ഡൗൺലോഡ് ചെയ്തതിനുശേഷം ആറുമാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഇതിന് കാലാവധിയുണ്ട് ഈ കാലാവധിക്കുള്ളിൽ നമ്മൾ റീഫിനാൻസിങ്ങിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി ആധാർ കാർഡ് പിന്നെ ഇ പാസ്സ്ബുക്ക് തുടങ്ങിയ രേഖകൾ ഒക്കെ കയ്യിൽ ഭദ്രമായി ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് ആയി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും സംശയങ്ങൾക്കോ എന്തേലും ആശയ വിനിമ ആശയ സംശയ ആശയ വിനിമയങ്ങൾക്കോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ പൂജ്യം എട്ട് ഒമ്പത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസിലാക്കുക